എൻ്റെ സംസ്കാരത്തിൻ്റെ തനതായ കലകള് പറയുമ്പോൾ കഥകളി കുച്ചിപ്പുടി ഇതൊക്കെ തനതായ കലകളാണ് അതുപോലെത്തന്നെ കരകൗശല വസ്തുക്കള് എന്നൊക്കെ പറയണേൽ നമ്മൾ മണ്ണുകൊണ്ടും ചിരട്ട കൊണ്ടും ഒക്കെ ഒരുപാട് നമ്മള് വസ്തുക്കള് ഒരുപാട് ക്രീയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഉണ്ടാക്കാനുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അതിൻ്റെതായ രീതിയില് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ തുണി സാമഗ്രികളൊക്കെ നോക്കാണ് വെച്ചാൽ ചിലപ്പോൾ നെയ്ത്ത് നെയ്ത്ത് വ്യവസായം ഒരുപാടുള്ള ജില്ലയാണ് പാലക്കാട് ഇപ്പോൾ ഈ കൂത്താമ്പുള്ളി അവിടെയൊക്കെ നെയ്തുകൊണ്ട് ആൾക്കാര് ഒരുപാട് പേര് ഈയൊരു തുണി നെയ്ത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ നെയ്ത്തു വ്യവസായം ഒരുപാടുള്ള ഒരുപാട് ഉണ്ട്